ആ വരു ചേട്ടാ വരു വരു വരു ആ സാറിന് ഇപ്പോൾ ഏത് പൂവാണ് വേണ്ടത് ചെണ്ടുമല്ലി ഉണ്ട് ജമന്തി ഉണ്ട് അരളി ഉണ്ട് വാടാമല്ലി ഉണ്ട് അത് ഇപ്പോൾ ചെണ്ടുമല്ലി തന്നെ മൂന്ന് കളർ ഉണ്ട് ചുമപ്പ് ഉണ്ട് മഞ്ഞ ഉണ്ട് വെള്ള ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ ഇതിപ്പോൾ ചെണ്ടുമല്ലി വന്നിട്ട് ഈ മഞ്ഞ വന്നിട്ട് എൺപത് രൂപ ഉണ്ട് കിലോ ഈ ഈ ചുമപ്പ് കളർ വന്നിട്ട് എൺമ്പത് എൺമ്പത് മഞ്ഞ എൺമ്പത് ആ ഈ വെറൈറ്റീ കളർ എന്ന് പറഞ്ഞാൽ ഈ അരളിയിൽ തന്നെ നാല് വെറൈറ്റീ ഉണ്ട് ഒന്ന് വൈലറ്റ് കളർ വെള്ള ഉണ്ട് മഞ്ഞ ഉണ്ട് പിന്നെ റെഡും ഉണ്ട് പിന്നെ വാ വാടാമല്ലി ഒരു കളറിൻ്റെ വരൂള്ളൂ ആ റെഡ് കളറിനെ വരൂള്ളൂ വാടാമല്ലി

ബ്ല്യൂയിൽ വന്ന് ഈ ജമന്തി ഉണ്ട് ആ ആ ജമന്തി കുറച്ച് വില കൂടും നൂറ്റി നാപ്പത് വരുന്നുണ്ട് നൂറ്റിനാപ്പത് ആ

ആ പിന്നെ വെറൈറ്റീ കളർ വേണമെങ്കിൽ മറ്റെ ഇതെടുത്ത് ജരാബറ ഉണ്ട് വെറൈറ്റീ കളർ ആണ് അത് അത് അത് സിംഗിൾ പീസ് ആണ് ഒരു പീസിന് എട്ട് രൂപ വച്ചിട്ട് ആണ് ആ ഒരു പീസിന് എട്ട് രൂപ വച്ചിട്ട് നമ്മൾ ഈ സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യില്ലെ ആ അതാ ആ സാധനം ആണ് ഇത് റോസ് ഉണ്ട് റോസ് എങ്ങനെ ആണ് ഇത് ഇപ്പോൾ റോസ് പൂവ് ആയിട്ടുള്ളത് ഉണ്ട് ഇതളായിട്ട് മാത്രം ഉള്ളതും ഉണ്ട് ഇതളായിട്ട് ആകുമ്പോൾ റേറ്റ് കുറയും പൂവ് ആയിട്ട് സിംഗിൾ പീസിൻ്റെ ഉണ്ട്

അതാകുമ്പോൾ അത് മുന്നൂർ രൂപ വരുന്നുണ്ട് കിലോ മുന്നൂർ ഇത് മറ്റെ ഇത് അര കിലോ മതിയാകുമോ അരകിലോ എന്ന് പറയുമ്പോൾ കുറച്ച് ഉണ്ടാവുളളൂ സെൻ്ററിൽ ഇടാൻ ആണെങ്കിൽ ഈ ജരബറ എടുക്കുന്നത് ആണ് കുറച്ചും കൂടെ നല്ലത് അതാവുമ്പോൾ വെറൈറ്റീ കളർ സെൻ്ററിൽ വെക്കാൻ അല്ലെങ്കിൽ പിന്നെ ആമ്പലോ താമരയോ താമര ഇതിനാ ഒരു ഒരു പൂവിന് ആണ് ഒരു മൊട്ടിന് ആണ് ഇത്ര രൂപ നമുക്ക് അതേ അതേ ഒരു മൊട്ട് പതിനേഴ് രൂപ പൂവ് ആയിട്ട് ഉണ്ട് അതിൻ്റെ തിരഞ്ഞ് എടുക്കണം നിങ്ങൾ ഉണ്ട് അതില് അത് ഉണ്ട് നോക്കി എടുത്താമതി തിരഞ്ഞ് എടുത്താമതി പതിനേഴ് പതിനേഴ് രൂപ ആ ആ ആ അല്ല അത് നമ്മൾ ഇപ്പോൾ ഉണ്ട് ഉണ്ട് അത് നമ്മൾ തരാം അത് തരാം അത് നമ്മൾ എന്തായാലും തരുമല്ലോ ഇല്ല ഇല്ല ഇതിപ്പോൾ ഓണം ആയതുകൊണ്ട് ആക്ടിവ് ആണ് എപ്പോഴും മാർക്കറ്റ് നമ്മൾ ഫുൾ ആയിട്ട് ഉണ്ടാവും ഇന്നും ഈ ഒരു ആഴ്ച ഫുൾ ആയിട്ട് ഉണ്ടാവും ആ ഇപ്പോഴോ നാളെ രാവിലെ വന്നിട്ടോ എങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല ആ നാളെ ആവുമ്പോൾ നമ്മൾ ഡയറെക്ട് മറ്റെ ഇവിടെ നിന്ന് ബാംഗ്ലൂര് നിന്നും കൊയമ്പത്തൂർ നിന്നും കൊണ്ടു വരുന്നത് ആണ് ഇന്ന് വൈകീട്ട് ലോഡ് വരും ഓ നാളെ ആണെങ്കിലും കുഴപ്പമില്ല എങ്ങനെ അഡ്വാൻസ് തന്നിട്ട് പോവുന്നുണ്ടോ എങ്ങനെയാ അഡ്വാൻസ് അഡ്വാൻസ് തന്നിട്ട് പോവാൻ ആണോ ആ അത് എന്തായാലും തരാം അത് നമ്മൾ ഇപ്പോൾ അങ്ങനെ ഒന്നും പറയുന്നില്ല കൂടിയ വില ഒന്നും ഇല്ല ഇപ്പോൾ അടുത്ത കടയിൽ അന്വേഷിച്ചാലും അറിയാല്ലോ നമ്മൾ ഇപ്പോൾ ഏറ്റവും കുറവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ആ ആ അത് നമുക്ക് ഇന്ന് ഇപ്പോ വൈകീട്ട് ഏതൊക്കെ ലോഡ് വരുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നിലവിൽ ഉള്ള ഈ കാണുന്നതൊക്കെയാണ് ഇനി ഇപ്പോൾ വൈകീട്ട് വരുന്ന ലോഡിൽ ഏതെങ്കിലോക്കെ പുതിയത് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നോക്കിട്ട് ചിലപ്പോൾ നാളെ ആ ഞങ്ങൾ ആ ആ ശരി ശരി ശരി ആ ഓ ഓ ആ ഓ ശരി ശരി ആ ആ ഓ ശരി ആ ആ ശരി ശരി ശരി ശരി ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വിട് കടയിലേക്ക്